ഞാൻ നെയ്ത്തിനും തുന്നലിനും സാധാരണയായി കളറുകൾ തിരഞ്ഞെടുക്കുന്നത് അത് ഓരോന്നും തമ്മിൽ വച്ച് നോക്കും നൂലുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ തുണിയുടെ കഷ്ണങ്ങൾ രണ്ടു കഷ്ണങ്ങൾ ചേർത്ത് അത് മാച്ച് ചെയ്യുന്നുണ്ടോ അതിന് സാമ്യമുണ്ടോ എന്ന് നോക്കിയാണ് തിരഞ്ഞെടുക്കുക മാത്രമല്ല എനിക്ക് കളർ തെരഞ്ഞെടുക്കാനും എന്നെ സഹ എൻറെ ഫ്രണ്ട്സും എൻറെ കൂട്ടുകാരും എൻറെ വീട്ടിലെ കുടുംബാംഗങ്ങളും എന്നെ സഹായിക്കാറുണ്ട് അവരുടെയെല്ലാം നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഞാൻ കളറുകൾ തെരഞ്ഞെടുക്കാറുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ കളറുകൾ റെഡ് മെറൂൺ കറുപ്പ് നേവി ബ്ലൂ എന്നിവയെല്ലാമാണ് ഇതിൽ കൂടുതൽ കോമ്പിനേഷൻ ഇതിൻറെ തന്നെ ലൈറ്റും അല്ലെങ്കിൽ സെക്കൻഡ് ലൈറ്റും ഉള്ള കളറുകൾ ആണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത് ഇതിൻറെ ഒത്തിരി കളക്ഷൻസ് ഈ മെറൂണിൻ്റെ അല്ലെങ്കിൽ റെഡിൻ്റെ കറുപ്പ് അങ്ങനെയുള്ള നിറങ്ങളുടെ കുറെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് എൻറെ കയ്യിൽ ഡ്രസ്സുകൾ എൻറെ കയ്യിൽ ഉണ്ട്